ഇന്ത്യൻ സിനിമകളെ കുറിച്ച് സംഗീതത്തെക്കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് അത് എക്സാമ്പിള് ഹിന്ദി സിനിമയായാലും മലയാളം തമിഴ് സിനിമകളാണ് കൂടുതൽ കാണാറുള്ളത് കൂടുതലും കൊമേഴ്ഷ്യൽ സിനിമകളാണ് താൽപ്പര്യം പാട്ട് ഒത്തിരി ഇഷ്ടമാണ് പാടത്തില്ലെങ്കിലും കേൾക്കാനിഷ്ടമാണ് ചിത്ര കേയെസ് ചിത്രയുടെ പാട്ട് യേശുദാസിന്റെ പാട്ട് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ വിധു പ്രതാപ് സിത്താര ഇവരുടെയൊക്കെ പാട്ടുകള് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാല് മമ്മുട്ടി നടി ശോഭന മഞ്ജു വാര്യര് പിന്നെ ഈ ഫഹദ് ഫാസിലിന്റെ സിനിമകളും ഒത്തിരി ഇഷ്ടമാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് സിനിമ ഒരു പരിധിവരെ മനുഷ്യന്റെ ആസ്വാദനശേഷിയെ പ്രത്യേകിച്ചും കൊമേഡി കോമെഡി സിനിമകള് കൊമ് കോമഡി സിനിമകള് ആണ് കൂടുതല് ഇഷ്ടം ഒരുപാട് ചിരിക്കാനുണ്ടാവും മന് മനുഷ്യന്റൊത്തിരി സ്ട്രെസ്സിന് അയവ് വരും ഈ സിനിമകൾ കാണുമ്പോൾ കൊ കോമെഡി സിനിമകൾ കാണുമ്പോഴത്തേക്കും അതില് കോ കോമഡി പാട്ടുകള് പ്രത്യേകിച്ചും ദിലീപ് അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ കോമഡി പാട്ടുകള് വളരെ നല്ലതാണ് വളരെ ഇഷ്ടമാണ്

എല്ലാ സിനിമകളും വളരെ നല്ലതാണ് എനിക്ക് കൂടുതലിഷ്ടം മലയാളമാണ് മലയാളവും തമിഴും ഹിന്ദിയും ഒക്കെ ഇഷ്ടമാണ് കാണാറുണ്ട് സ്റ്റണ്ട് ഇഷ്ടമാണെ പാട്ട് ഇഷ്ടമാണെ നാരാണന്റെ പാട്ടുകള് കൊള്ളാം ഹിന്ദിയിലെ പഴയകാല നടൻമാരെ ഇഷ്ടമാണ് ഷാരൂഖാന്റെ സിനിമ രണ്ട് നായികമാരുള്ള സിനിമ കാജോളും ഉള്ളാ സിനിമയുടെ പേര് മറന്നുപോയി ഉം ആ സിനിമയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കാണാറുണ്ട് പാട്ടുകളിഷ്ടമാണ് എല്ലാം ആസ്വദിക്കാറുണ്ട് നിറം എന്ന സിനിമയിലെ ആ കോമഡി പാട്ട് ഒത്തിരി ഇഷ്ടമാണ് അതില് കുഞ്ചാക്കോ ബോബന്റെയും ശാലിനിയുടെയും അഭിനയവും വളരെ മികച്ചതാണ് ഫാസിൽ എന്ന സംവിധായകന്റെ നല്ല ഒരു കയ്യൊപ്പ് ഉള്ള ഒരു സിനിമയാണത് അതുപോലെതന്നെ മണിച്ചിത്രത്താഴ് സിനിമ വളരെ മനോഹരമായിട്ട് പറയാവുന്ന ഒരു സിനിമയാണ് അതിനകത്ത് അഭിനേതാക്കളും അതിനകത്ത് അതിനകത്ത് ഗാനം സംവിധാനം ചെയ്തിരിക്കുന്ന എം ജി രാധാകൃഷ്ണൻ സാറും പാടിയിരിക്കുന്ന എം ജി ശ്രീകുമാര് വരെ വളരെ ഭംഗിയായിട്ട് അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റി പ്രേക്ഷകരെ ഒരുപാട് ഉല്ലാസകരമാക്കാൻ പ്രേക്ഷകരുടെ ആ ഉല്ലാസകര നിമിഷങ്ങള് ഉല്ലാസകരമാക്കാൻ സാധിച്ചിട്ടുണ്ട്